നമസ്ക്കാരം ഞാൻ അശോക് കേരളത്തിലെ ആരോഗ്യ പരിരക്ഷ മേഖല കൊറോണ കാലത്ത് പ്രശ് വളരെ അധികം പ്രശസ്തിയാർജിച്ച ഒന്നാണ് കൊറോണ കാലത്തെ കേരള ആരോഗ്യ പരിരക്ഷാമേഘലയുടെ പ്രവർത്തനം കാര്യക്ഷമമായ പ്രവർത്തനമാണ് ഇതിനുകാരണം കൊറോണ കാലത്ത് വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചെങ്കിലും ബ്ബ ചില കാര്യങ്ങളിൽ വളരെ അധികം പോരായ്മകൾ കാണ് കാണുന്നതായി എനിക്ക് തോന്നിട്ടുണ്ട് എ എ എല്ലാവർക്കും നല്ല ചികിത്സ ലഭിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും നമ്മുടെ അരോഗ്യ പരിരക്ഷാമേഖല പരാച പരാചയപ്പെടുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളിൽ നി നികത്തുന്നുണ്ടെന്നു പറയ് പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒന്നും ഗുണം നമ്മൾ സാധാരണ ജനങ്ങൾക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നതാണ് സാരം